ആ ഹലോ അ ഡോക്ടറേ ആ അ എൻ്റെ പേര് ലിജി ആ എനിക്ക് ചെറിയൊരു ഞാന് മ്മ് ആ ചെറിയൊരു ആ ഞാന് എനിക്ക് ചെറിയൊരു പ്രശ്നം വിഷമം ഒരു മാനസികമായിട്ടൊരു മ്മ് അതിന് ആ ഞാന് എനിക്കിതെപ്പഴും ഒരു എപ്പോഴും ദേഷ്യപ്പെടുകയും അങ്ങനെയൊക്കെ ഒരു മൗനം ആവശ്യമുള്ള സമയത്ത് മൗനായിട്ടിരിക്കുകയും അങ്ങനൊക്കെള്ളൊരു പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് മ്മ് മ്മ് മ്മ് ആ ഇന്നലെ എന്നാ ആ മറ്റുള്ളവരറിയോന്നുള്ളൊരു പേടികൊണ്ടാണ് ഞാന് ഇത്രയും നാളായിട്ട് മറച്ചങ്ങു വച്ചിരുന്നെ ഡോക്ടറിൻറ്റടുത്തൊരു നിർദ്ദേശം തേടാനായിട്ടാണ് വിളിച്ചെ ആ ആറ് മാസം ചെയ്യണം മരുന്നു കഴിക്കേണ്ടിവരുമോ വീട്ടില് ആരെങ്കിലും അറിഞ്ഞാല് പ്രശ്നാ ആന്നൊക്കെ വിചാരിച്ചാണ് ഞാന് പിന്നങ്ങ് വീട്ടിലാരെങ്കിലും അറിഞ്ഞാലെ മ്മ് ആ ഹാ ആറ് മാസം മരുന്നു കഴിക്കേണ്ടി വരുമോ ഡോക്ടറെ

ആ പിന്നെ ഞാനെന്ന് വരണം ഹോസ്പിറ്റ്ലില്എന്ന് വരണമെന്നുള്ളതൊന്ന്

ബുധനാഴ്ച്ച എനിക്ക് വരാന് പറ്റത്തില്ല ഡോക്ടറേ അന്ന് വേറൊരു കാര്യമായിട്ട് പോവാണ് വ്യാഴാഴ്ച്ചയോ ആ ഹാ വ്യാഴാഴ്ച്ച എത്ര മണിക്ക് വരണം ആ ഹ ആ ഞാന് ഭർത്താവിന്റടുത്തു പറയാമേ ഭർത്താവിനാ ആ ദിവസം ഫ്രീ ആണോ അറിയത്തില്ല ആ എന്നാലും ഞാന് പറഞ്ഞു നോക്കാമേ മ്മ് ആ ആ ഹ ഇതെവിടാ സ്ഥലൊ എവിടാ ഹോസ്പിറ്റല് സ്ഥലോ അ അ ആ ആ ആ ഞാനാ ഭാഗത്തോട്ടൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് ആ ആ ഭർത്താവിനറിയാരിക്കാം മ്മ് അ മ്മ് മ്മ് മ്മ് ആ പിന്നെ അ അ ഹ അ അ ആ അ ആ അ ആ

അ അ അ അ ആ വരാം വരാം ആ വരാം ഓക്കെ